റസ്റ്റോറന്റല്ലേ ഞാന് എനിക്ക് പനി ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടില് ഞാന് വീട്ടില് കഴിയാണ് ഞാന് ഇവിടെ ഒരു ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ച് അപ്പോള് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെങ്കില് ചൂട് കഞ്ഞി കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോള് വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ കഞ്ഞി കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയാൻ സാധിച്ചു പക്ഷേ അത് ചൂട് നിലനിന്നിരിക്കണം എനിക്ക് രണ്ടുമൂന്നു മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും കുടിക്കാനായിട്ട് എത്രയും നേരം ചൂട് നില്ക്കുമോ ആ രീതിയില് ചൂട് നിക്ക് നില്ക്കത്തക്ക രീതിയിലുള്ള ഒരു പാക്കിങ് സംവിധാനത്തില് ഉള്ള ഒരു കഞ്ഞിയാണ് എനിക്ക് കിട്ടേണ്ടത് അപ്പോള് ഒരു തവണ വരുത്തിക്കഴിഞ്ഞാൽ രാവിലെ കഞ്ഞി കുടിച്ചിട്ട് ഉച്ചയ്ക്കും കുടിച്ചു വൈകുന്നേരവും കുടിക്കാനായിട്ട് സാധിക്കും അതില് ശകലം വെള്ളം കൂടുതല് ചേർത്ത്ച്ചാലും വെള്ളം നീട്ടി ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്നാൽ മാത്രമേ അത് ധാരാളം വെള്ളവും കുടിക്കണം എന്ന് ഡോക്ടര് പറഞ്ഞു എന്നാൽ മാത്രമേ പനി ഒന്നു മാറിക്കിട്ടുകയുള്ളൂ ഒന്ന് സഹായിക്കണം വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു അപേക്ഷയായിട്ട് നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം നല്ല രീതി മികച്ചതാണെന്ന് കേട്ടറിവ് എനിക്കുണ്ട് എന്നിരുന്നാലും അത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും അത് കൂടുതലറിയാന് സാധിക്കുന്നത് സന്തോഷമായിട്ട് അതിനുള്ള ഒരു സാഹചര്യം ചെയ്യുക